ഹലോ മേസ്രി അല്ലേ ആ ഞാന് എൻ്റെ പേര് റോസിയാണ് ഞാന് ഒരു വീടിൻ്റെ മുകളില് രണ്ട് റൂം ഒക്കെ എടുക്കണമെന്നു വിചാരിക്കുന്നുണ്ട് ഒരു ബാത്റൂമും എല്ലാം കൂടെ അപ്പോള് അതിന് എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് എങ്ങനെയാവും റേറ്റ് ആ നാളെ അതെ അതെ അതെ ഫൗണ്ടേഷനൊക്കെ നല്ല സ്ട്രോങ്ങാണ് രണ്ട കണക്കാക്കി തന്നെ ആദ്യമേ ഇട്ടതാണ് ആ ഉണ്ട് ആ ബെല്ട്ട് ആ ആണ് ആണ്

ഉം ഹോളോ ബ്രിക്സാണ് വാർത്തിടണം അതാണ് സേഫ്റ്റി

അല്ല അതൊക്കെ നമുക്കു നല്ല കാറ്റം കാര്യങ്ങളുമുണ്ട് നമുക്ക് അല്ല നമുക്ക് വാർക്കുന്നതാണ് താല്പര്യം അത് അത് ആ ആ ഉം ഉം ഉം ഉം ഉം എന്നാലും ഒരു ഉദ്ദേശം

ആ രണ്ട് റൂം ബാത്റൂം സിറ്റൗട്ടൊക്കെ വരും അത്രയും തന്നെ ആ അത്രേയോ ആ ഓ ഉം ഉം ഉം ആ ആ അതെ എല്ലാം ഉണ്ട് ഉം ആ വരുന്നുണ്ട് എന്നാല് മാക്സിമം ഒന്നു കുറച്ച് എമൗണ്ടൊക്കെയൊന്ന് സാമ്പത്തികം നോക്കുമ്പോള് ഒരു പത്ത് പതിമൂന്ന് ലക്ഷത്തിനകത്തൊക്കെ ഓക്കെയാകും ഉം അ ആ

ആ അതെ അതെ ആ അത് മോഡല് വരച്ചിട്ടേ എന്ന ആ അതെ വന്ന് ഒന്ന് കാണിക്കുമ്പോള് അതെന്തെങ്കിലും സജഷനുണ്ടെങ്കില് ഞാൻ പറയാം ഉം ഉം ആ ആ ശരി ശരി ആ ആ ആ ശരി ശരി അപ്പോള് ആ അതെന്താണെന്നു നോക്കാം പിന്നെ ഒത്തിരി ഡേറ്റ് എടുക്കല്ലേ അപ്പോള് എത്രയും പെട്ടെന്നത് ചെയ്യാനുള്ളരൊത്യാവശ്യം ഉണ്ട് അപ്പോള് അതുകൊണ്ട് കൂടുതല് സമയം എടുക്കാതെ അതിന് ആ ഒരഞ്ചു ലക്ഷം ആദ്യം തരാം

ആ അപ്പോഴത് ആ ആ തടി നല്ലത് കാരണം മാക്സിമം നമ്മള് നല്ലതായിട്ട് വച്ചാല് കാരണം പെട്ടെന്നതു ചീത്തയായി പോകാതിരിക്കാനും ഒന്നും ചെയ്യാത്ത നല്ല തടികള് ഇപ്പോള് സാധാരണ മാഞ്ചിയമോ ആ ആ ആഞ്ഞിലി അത് കൊള്ളാമല്ലോ അഞ്ഞിലി നല്ലത് നല്ല ആഞ്ഞിലി കിട്ടുവാണെങ്കില് ആ പിന്നെ ശരിക്കും അതു വലിയ കുഴപ്പമുണ്ടാകത്തില്ല ഓക്കെ ഉം ഉം

ആ ശരിയാണ് ആ ശരി ശരി ശരി അപ്പോള് ഓക്കെ ഓക്കെ ശരി ശരി